ബൈക്കിങ് ബൈക്ക് ഓട്ടിക്കുമ്പഴത്തേക്ക് നല്ലൊരു അനുഭവാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് അതിൽ നിന്തെന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് എന്തെങ്കിലും ഇഞ്ചറീസ് പറ്റാം നമ്മള സ്പീഡന് പോകുമ്പം പെറ്റി വരാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പിന്നെ നമ്മളിങ്ങനെ ബൈക്ക് ഓടിക്കാൻ്പഴത്തേക്കക്ക് ചെല ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുത്തില്ല പെണ്ു ബൈക്ക് ഓടിിച്ചച്ച് പോകുന്നതും അതും ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കൊറച്ച് ആൾക്കാരുുണ്ട് പക്ഷെ ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് അതൊന്നും വല്യ വിഷയല്ല ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ എല്ലാർക്കും ബൈക്ക് ഓട്ടിക്കാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അ നമ്മള് ബൈക്ക് ഓടിിച്ചച്ച് പോയപ്പം ഒരു വെട്ടം ഒരു ഇഞ്ചറ് പറ്റിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാ ഞങ്ങളിങ്ങനെ വലത്ത സൈഡിൽ നിന്ന് എടത്തോട്ട് തിരിയാൻ വേണ്ടി നിക്കുവായിരുന്നു ഇൻഡിക്കേറ്റർ ഇട്ടതും നമ്മള് ഇട്ട് തിരിഞ്ഞതും ഒരാള് വന്ന് കൊണ്ട് വന്ന് നമ്മള് ഇരിക്കുകയും നമ്മള് തിരിച്ച് വീഴുകയും ഒക്കെ ഒണ്ടായിരുന്നു ബൈക്കക്കറിൻ്റെ പ്രോബ്ലം ആയിരുന്നു വുള്ളി ഹൈ സ്പീഡിന് വന്ന് കൊണ്ട് വന്ന് ഇടുകയായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒണ്ടായിട്ടുണ്ട് ഒല്ലാതെ നല്ലതാണ് നല്ല അഭിപ്രായമാണ് മുന്നോട്ട് നമുക്ക് ബൈക്ക് യാത്ര നല്ലൊരു എന്താ പറയുള്ള നല്ലൊരു അനുഫവാണ് ച ചില ചില വികാരങ്ങള് നമുക്ക് എന്താ പറയുള്ളേ പറഞ്ഞാൻ മനസ്സ്യാൻ പറ്റത്തില്ല ഒറ്റക്ക് റൈഡിങ്ങനെ പോക ഒരുപാട് ദൂരം പിന്നെ കപ്പിൾസായിട്ട് പോകുന്നതും അങ്ങനെ പോകുന്നതും ഒക്കെ നല്ല ഒരു പ്രത്യേക വൈബാണ് കാറില് പോകുന്ന സുഖം അല്ലെങ്കിൽ എന്തിൽ പോകുന്നരു സുഖം നമ്മുടെ ബൈക്ക്ിൽ പോകുമ്പോം പ്രത്യേക ഒരു അനുഭവാണ് ബൈക്കി പോകുമ്പം കിട്ടാറുള്ളത് പിന്നെ ബൈക്കിൽ പോകുമ്പോ ഒരുപാട് എന്താ പറയണ്ട സ്പീഡ് ഒരുപാട് ഓവർ സ്പീഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാ ഇപ്പ ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഒള്ളത്ുകൊണ്ട് അതൊക്കെ വല്യൊരു ഇഷ്യൂാണ് നമുക്ക് അപ്പ സ്പീഡിന് പോകുന്നത്തൊക്കെ നമ്മടെ നന്മയ്ക്ക് വേണ്ടീട്ടാണ് ഒരുപാട് സ്പീഡിൽ പോവരുത് ഹെൽമെറ്റ് ധരിക്കണം എന്നൊക്കെ പറയുന്നത് ഹെൽമറ്റൊക്കെ ധരിച്ച് പോയില്ലെങ്കി ഒരുപാട് പ്രോബ്ലംസ് നമുക്ക്ുണ്ടകാം കാരണം ഒന്ന് ഞങ്ങക്ക് ഇതേപോലെ ആക്സിഡൻറ് ഉണ്ടായ ടൈമില് ഞങ്ങള് എന്താ ഹെൽമറ്റൊക്കെ ധരിച്ച് എല്ലാം റൂൾസ് കറക്റ്റ് എല്ലാം പരിച്ച് അങ്ങനെയായിരുന്നു അതുകൊണ്ട് നമ്മടെ തലയ്ക്കോ കാര്യങ്ങൊക്കോ ഒന്നും പറ്റിയൊന്നും ഇല്ല കാലിനൊക്കെ ചെറിയ കൊറച്ച് ഇഞ്ചറീസ് പറ്റിയതേ ഉണ്ടായിുന്നളൂ അപ്പം നമ്മള് മാക്സിമം സ്പീഡ് പറഞ്ഞിട്ടുണ്ട് ഒരു സ്പീഡ് ആ ലെവലിലെ കൂടാതെ മാക്സിമം അതിൽ കൊറച്ച് പോകാനാണ് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങള് വരും ഇന്ന് നമ്മുടെ സമൂഹത്തില് ഒരുപാട് അപകടങ്ങള് ഒരുപാട് അപകടങ്ങള് നടക്കുന്നുണ്ട് അതിൻ്റെേറ്റ മെയിൻ കാരണം ഓവർ സ്പീഡും ശ്രദ്ധയില്ലായ്മേയും പിന്നെ ക മദ്യ്യപിച്ചിട്ടുള്ള ഒള്ള ബൈക്ക് യാത്രയും കാര്യങ്ങളും ഒക്കെയാണ് അതൊക്കെയാണ് നമ്മള് ഒരുപാട് എന്താ പറണ്ടുള്ളത് അപകടങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് അതൊന്നുമല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങള് നമ്മുടെ ഇന്നത്തെ തലമുറയിൽ നിന്ന്ും നമുക്ക് മാറ്റാം മദ്യപിച്ച കൊണ്ടുള്ള യാത്ര ഫോൺ വിളിച്ച കൊണ്ടുള്ള യാത്ര അതെല്ലാം മാക്സിമം നമ്മള് ഒഴിവാക്കുകയുംന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നയാണ് ഏറ്റവും നല്ലത് ഒരുപാട് കാര്യങ്ങളില് എന്താ പറയാട്ടില്ല നമുക്ക് മാക്സിമം ഇന്ന ആൾക്കാരില് ഷെയറെ ചെയ്യുക എപ്പഴും ഹെൽമെറ്റ് ധരിക്കണം നമ്മള് എന്തടെ എന്തൊക്കെ റൂൾസ് ഉണ്ടോ അതെല്ലാം ധരിച്ച് അങ്ങനെ വേണം പോ കാറില് പോകുവവാന്നെങ്കി ബെിൽറ്റ് ധരിക്കണം അതെല്ലാം ചെയ്തോൊണ്ട് വേണം നമ്മളെന്ത യാത്ര ചെയ്യാം അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടീട്ടാണ് പിന്നെ എന്താ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക്ുണ്ടാവും ഒരു പരിധി സമയം കഴിയുമ്പത്തേക്കും പെൺകുട്ടികൾക്ക് ബൈക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തൊരു കാലഘട്ടം അങ്ങനെയാണ് എന്ത വെച്ച് കഴിഞ്ഞാ പൊറത്തോട്ട് സന്ധി കഴിഞ്ഞാ ഇറങ്ങാൻ പറ്റത്തില്ല അത് ബൈക്കിലാന്നെങ്കില് ഒറ്റയ്ക്ക് പെൺകുട്ടികളറിയ കഴിഞ്ഞാ അതിനൊന്നും പറ്റാത്തൊരു കാലഘട്ടത്തി കൂടെയാണ് നമ്മളിന്ന് കടന്ന് പൊക്കൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിൻ്േതായിട്ടുള്ള കൊറച്ച് പ്രശ്നങ്ങളാണ് അത് മാറപ്പെടുത്ത അന്യ സംസ്ഥാനത്ത് നിന്ന് ആളുകള് വരുകയും അവരുടെ അവര് ചാപർക്കുകയാണെന്ന് നമ്മുടെ നാടുകളില് നമുക്ക് സന്ധ്യായി കഴിഞ്ഞ് കഴിഞ്ഞാ അവര് ജോലി കഴിഞ്ഞ് വരുന്ന ടൈംന്ന പെണ്ണക്കക്കെ അല്ലെങ്കിൽ തന്നെ മലയാളികെ പോലും ഇന്നാത്തെ സമൂഹത്തില് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തി കൂടെയാണ് കടന്ന്ു പക്കൊണ്ടിരിക്കുന്നത് ബൈക്ക് യാത്ര അടിപൊളിയാണ്